ചേട്ടാ ഈ മെക്കാനിക്കല്ലേ മറ്റേ ലാപ്ടോപ്പൊക്കെ സർവീസ് ചെയ്യുന്ന ചേട്ടാ ഈ ഞാൻ വിളിച്ചതേ എൻ്റെയൊരു ഫ്രണ്ടാണ് നമ്പറ് തന്നത് ഞാൻ കൊറച്ച് ആ ഏഹ് ഞാൻ കുറച്ചുനാൾ മുമ്പ് കോഴിക്കോടുനിന്നൊരു ലാപ്പെടുത്തായിരുന്നു ലാപ്പ് മറ്റേ അസ്യൂസിൻ്റെ

ലാപ്പെടുത്തു അതും എടുത്തു ഒരു കമ്പ്യൂട്ടറും എടുത്തായിരുന്നു ലാപ്പിനും കമ്പ്യൂട്ടറിനും ഇഷ്യൂ ഉണ്ട് ലാപ്പിൻ്റെയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ സാധാരണ ഓണാക്കില്ലേ ഓണാക്കുമ്പോൾ ഫസ്റ്റ് ചെറിയൊരു ലാഗുണ്ട് വല്ലാണ്ട് പിന്നെ അതേപോലെ ഡിസ്പ്ലേ കുറച്ച് ഇടയ്ക്ക് ഒരു കുറേ ലൈന് വരിക അങ്ങനത്തെ കുറച്ച് സീനാണ് ഡിസ്പ്ലേയിൽ ഇടക്കിടയ്ക്ക് ലൈന് വരുന്നുണ്ട് ഇടയ്ക്ക് കീബോഡും വർക്കാവുന്നില്ല

അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു അപ്ഡേറ്റ് ചെയ്തായിരുന്നു അതിന് ശേഷമാണ് ഇങ്ങനെ വരാൻ തുടങ്ങിയത് അപ്ഡേറ്റിന് ശേഷമാണിങ്ങനെ വരാൻ തുടങ്ങിയത് അതുവരെ വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ആ അപ്ഡേറ്റ് ചെയ്ത ശേഷം പിന്നെ ഇടക്കിടയ്ക്ക് സ്ക്രീനിലൊരു കുറേ പച്ച വര വരാൻ തുടങ്ങി ഗ്രീൻ ലൈൻസ് കാണിക്കാൻ തുടങ്ങി

ഡിസ്പ്ലേ മാറ്റണമെങ്കിൽ ഏകദേശം ഇത്ര ഫണ്ടാവുമോ ആറായിരമാണോ ഏട്ടാ

കീബോഡ് ഇടയ്ക്ക് മറ്റേ നമ്മൾ ഈ സ്പെല്ലിംഗൊക്ക ടൈപ്പ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് കീബോഡ് വർക്കാവുന്നില്ല ഏട്ടായി ഏട്ടാ ഞാനിന്ന് എവിടെയാണ് കൊണ്ടുവരേണ്ടെ ഇത് മാനന്തവാടി എവിടെ എത്തണം ഇതെൻ്റെ കൂട്ടുകാരൻ തന്ന നമ്പറായിരുന്നു അപ്പോൾ ഇത് കറക്റ്റായിട്ടറിയില്ല അവൻ അവൻ ഈ ഷോപ്പിൽ കുറച്ച് നാൾ മുമ്പൊരു ലാപ്പ് കൊണ്ടുക്കൊടുത്തുയെന്ന് പറഞ്ഞത് നല്ല സർവീസാണെന്നൊക്കെ പറഞ്ഞായിരുന്നു

പായോഡാണോ ആകട്ടെ ഞാൻ നാളെയൊരു പത്ത് പത്തരയാവുമ്പോഴത്തേക്കും എത്തിയേക്കാം ആ ഒരു പത്തരയാവുമ്പോഴത്തേക്കെത്താം വാറൻ്റീ വാറൻ്റിയുണ്ടോ അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഞാൻ നോക്കിയിട്ടില്ല ആ ആ നാളെ ഒരു പത്തരയാവുമ്പോഴത്തേക്ക് എത്തിയേക്കാം പായോഡ് കറക്റ്റ് എവിടെയായിട്ടാണ് പായോഡ് തന്നെയാ ആ ആ ചേട്ടാ ഇതിൻ്റെ പേര് ശ്രേയസ് ആ ഓക്കെ ഏട്ടായി